ഞാനെന്തൊക്കെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതായത് ഇപ്പം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവ് സമയങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കുട്ടികളൊക്കെയുള്ള സമയത്ത് അവരോട് കൂടുതലായിട്ട് കളിക്കാനും അവരോട് കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലാത്ത ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് പണിയുള്ള രാവിലെ തന്നെ പണീലാവും കാരണം എൻ്റെ കുട്ടിക്കും ഒക്കെ പിന്നെ ഭക്ഷണൊമൊക്കെ കൊടുത്തു വിടണം ലഞ്ച് കൊടുത്തുവിടണം പിന്നെ ബ്രേക്ഫാസ്റ്റിന് എന്തെങ്കിലും കൊടുത്തു വിടണം അപ്പം എല്ലാം രാവിലെത്തന്നെ ചോറും കറിയു കാര്യങ്ങളൊക്കെയാവും പിന്നെ എൻ്റെ മോൻ്റെ കാര്യം നോക്കി ഇരിക്കും അവനുറങ്ങുമ്പോൾ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടി വി കാണും അല്ലെങ്കിൽ മൊബൈലിലെന്തെങ്കിലും കാണും പിന്നെയെന്ന് വെച്ചിട്ടൊണ്ടെങ്കിൽ വായന വായന ഞാനങ്ങനെ വായിക്കാറൊന്നുമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ടിവിയും മൊബൈലും തന്നെയാണ് സ്പെൻഡ് ചെയ്യാറ് മൊബൈൽ കൂടുതലും യൂട്യൂബിലെന്തെങ്കിലും ഒക്കെ കണ്ടിരിക്കും പിന്നെ അതുപോലെത്തന്നെ നമ്മൾ ഞാൻ പിന്നെ യൂട്യൂബല്ലാണ്ടെന്ന് വെച്ചിട്ടൊണ്ടെങ്കിൽ യുട്യൂബ് യൂട്യൂബാണ് കൂടുതലും കാണാറ് അല്ലെങ്കിൽ ഇൻസ്റ്റാ കാണും ഇൻസ്റ്റേയിൽ റീല് കാണും അല്ലേല് സ്റ്റോറി ഇടും അങ്ങനത്തെ പരിവാടിയൊക്കെ ചെയ്യും പിന്നെ കൂടുതലും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുമായിട്ടുള്ള കളി അങ്ങനെ അവരു ഞാൻ ഇങ്ങനെ മൊബൈലിലൊന്നും കളിക്കാറില്ല